ഹലോ ഹലോ ഡോക്ടറല്ലേ ആ ഞാനിങ്ങനെ എനിക്ക് പല്ല് വേദനയായിട്ട് വിളിക്കുന്നതായിരുന്നെ അണപ്പല്ല് ഭയങ്കര പല്ല് വേദനയാണ് പല്ലിൽ കേടൊക്കെ ഉണ്ട് അപ്പം ആ വേദന രാത്രി സമയത്ത് ആ ഫുഡ് കഴിക്കുമ്പം ഫുഡ് കഴിക്കുമ്പോളാണ് വേദന ഇളകുന്നത് ഇല്ല വലിയ സീനില്ല ഫുഡ് കഴിക്കുമ്പോളാണ് പ്രശ്നം ഇല്ല ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ചെയ്തിട്ടില്ല ആ അണപ്പല്ലിന് തലയൊക്കെ ഭയങ്കര വേദനയാണ് ഒരു ടൂ വീക്കാവാറായി ആ ടാബ്ലെറ്റ് ഒന്നും വാങ്ങി കഴിച്ചില്ല ആ കേടുണ്ട് കേടുണ്ട് ആ കഴിക്കാറുണ്ട് ആ ഇപ്പോളും കഴിക്കുന്നുണ്ട് മിഠായി അല്ലേ മിഠായി കഴിക്കാതിരിക്കില്ലല്ലോ എങ്ങനെ ഇരുപത്തിമൂന്ന് അങ്ങനെ ഓവറ് കഴിക്കാറൊന്നും ഇല്ല കുറച്ചേ കഴിക്കാറുള്ളൂ ഒരു പല്ല്

ആ ഓക്കെ ആ ഓക്കെ ഓക്കെ പഠിക്കുകയാ ആ അതെ അതെ ആ ഓക്കെ ആ റൂട്ട് കനാല് ചെയ്യണോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ താങ്ക് യൂ